ഹലോ ആരായിരുന്നു വിളിക്കുന്നത് ആ ഇത് കഥകളി പഠിപ്പിക്കുന്ന സ്ഥലവാണല്ലോ ക്ഷേത്രവാണ് കഥകളി നമുക്ക് ആറ് മാസം മുതൽ ഒരു വർഷം വരെയാണ് കഥകളിയുടെ പഠന സമയമെന്ന് പറയുന്നത് അതിനോരോ ഘട്ടങ്ങളുണ്ട് മുദ്രകൾ അതിൻ്റെ വാചികാഭിനയം ആംഗികം സ്വാസ്തികം ഇതെല്ലാം ഓരോ ഘട്ടം ഘട്ടമായിട്ടേ നമുക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റുകയുള്ളു ഒപ്പം അതിനൊരു ഒരു ഏകദേശം ഒരു ലക്ഷം രൂപ അടുത്തോളം ചിലവ് വരും ആ കുറയാൻ നമുക്കുണ്ടല്ലോ മാഡം അത് ഓരോ കോഴ്സും ഓരോ ആംഗ്യ ഭാവങ്ങളും ഓരോരുത്തരാണ് നമുക്കത് നമ്മൾ കലാമണ്ഡലത്തിലാണ് കൂടുതൽ അതിന് നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നത് അതിവിദഗ്ദ്ധരായ ആളുകൾ അതിൻ്റെ പ്രഗൽഭരായ ആളുകളാണ് ഇതെല്ലാം വന്ന് നമുക്ക് പഠിപ്പിച്ച് തരുന്നത് സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുകയില്ല അപ്പം നമുക്കങ്ങനെ ചിലവ് കുറവുള്ളൊരു കാര്യമല്ല അപ്പം നമുക്ക് ആ ഏകദേശം ആ തുക് തന്നെ വരേണ്ടി വരും ആ അല്ല നമ്മൾ അത്ര പെട്ടെന്ന് നമുക്കത്രപ്പെട്ടന്നങ്ങനെ സ്വായത്തമാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നല്ല മേഡം കാരണം മുഖ ഭാവങ്ങൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഉണ്ട് അത് ഒരു ദിവസം കൊണ്ടോ മാഡം ഉദ്ദേശിക്കുന്നത് പോലെ ഒരു മാസം കൊണ്ടോ ഒന്നും ചിലപ്പം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല പിന്നെ അതിൻ്റെ വേഷവിധാനങ്ങൾ തന്നെ ധാരാളം ഉണ്ട് പച്ച കത്തി കരി താടി മിനുക്ക് എന്ന്പറഞ്ഞ് അപ്പം ഇതിനെല്ലാം നമ്മൾ സ്വയക്ക്തമായ പ്രകൃതിയിൽ നിന്ന് തന്നെ ചാലിച്ചെടുക്കുന്ന വൈവിധ്യമാർന്ന കളറുകളാണ് അപ്പം അതൊക്കെ ശേഖരിക്കുക അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ശ്രമകരമായ കാര്യമല്ലേ ഇതിനൊക്കെ നമുക്ക് വലിയ ചിലവ് ആകുന്ന കാര്യങ്ങളാണ് മാഡം അപ്പം അതെല്ലാം കൂടെ വച്ചാണ് ഐ മീൻ നമ്മുടെ സ്ഥാപനത്തിന് മേഡം നമ്മടെ സ്ഥാപനത്തിനൊരു പേരുണ്ട് ഇപ്പം നമ്മൾ ആ ഒരു രീതിയിൽ പിന്തുടർന്ന് അത്തരം രീതിയിൽ നല്ല പ്രഗൽഭരായ ആളുകളെ വച്ച് പരിശീലനം സിദ്ധിച്ച് ആണ് നമ്മൾ അരങ്ങത്തേക്ക് ഇറക്കുന്നത് അപ്പം നമ്മളുടെ നിലവാരം അനുസരിച്ച് ഏകദേശം ഒരു ഒരു രൂപ അടുത്ത് വരും ഇതിന് ചിലവ് വരുന്നതാണ് നമുക്കതിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടി ഒന്നും ഇല്ല ആ ഒരു സ്ഥാപനം ആ വേറൊരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ നിലവാരം കുറഞ്ഞ പുറത്ത് നിന്ന് പ്രഗത്ഭരായ ആളുകളായിരിക്കണമെന്നില്ല അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കത്ര ക്വാളിറ്റി ഉണ്ടാകണമെന്നില്ല ഇതെല്ലാം നമ്മുടെ സ്ഥാപനത്തിന് മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ് മാഡം അപ്പം ഇവിടെ പഠിച്ചാൽ അപ്പം താങ്കൾ അങ്ങനെയാണെങ്കിലൊരു കാര്യം ചെയ്യൂ താങ്കൾ സ്ഥാപനത്തിൽ നേരിട്ട് വന്ന് കണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ചതിന് ശേഷം ചൂസ് ചെയ്ത മതിയാകും ഓക്കേ താങ്ക്യൂ